എൻ്റെ സെക്കൻഡ് പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്സെറ്റാണ് അപ്പോൾ ഞാന് ഹെഡ്സെറ്റ് വാങ്ങിയത് യൂട്യൂബിലെ റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരുന്നു ഞാൻ ഹെഡ്സെറ്റ് എടുത്തത് അപ്പോൾ റിവ്യൂയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് ബിൽഡ് ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ യൂസ് ചെയ്തപ്പോൾ എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയത് കാരണം സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു വാട്ടർ പ്രൂഫ് ആണെന്ന് പറഞ്ഞു പിന്നെ അതിന് എന്താ പറയുക ബാസും കാര്യങ്ങളൊക്കെ ക്ലീയറാണ് പിന്നെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞാണ് സാധനം എടുത്തത് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വൺ മന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ബഡ്ഡും കാര്യങ്ങളൊക്കെ പോകാൻ തുടങ്ങി കാരണം അതൊക്കെ റബ്ബറിൻ്റെ സാധനമായത് കൊണ്ട് പൊടിഞ്ഞു പോകാൻ ഒക്കെ തുടങ്ങിരുന്നു അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ വിട്ട് പോയി പിന്നെ വാട്ടർ പ്രൂഫാ എന്ന് പറഞ്ഞെങ്കിലും ഇത് നമ്മൾ ജസ്റ്റ് മഴയത് യൂസ് ചെയ്തപ്പോൾ തന്നെ ഫ്ലാഷ് അടിച്ചപ്പോൾ തന്നെ അതായത് ഒരു സൈഡ് ലെഫ്റ്റ് സൈഡ് ഒക്കെ വർക്ക് ചെയ്യാണ്ടായി അപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ യൂട്യൂബില് റിവ്യൂ ഉണ്ടെങ്കിലും എനിക്ക് പിന്നെ അതൊരു നല്ല പ്രോഡക്റ്റായിട്ട് തോന്നിയില്ല അത് ഭയങ്കര എന്താ പറയുക ഒരു മോശമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്